ഇന്ത്യയിൽ കുറെ ജോലികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് പഠിച്ചുകഴിഞ്ഞ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ വെറുതെയിരിക്കുന്ന അൺഎംപ്ലോയിഡ് പ് കുട്ടികളുടെ ഇടയിലേക്കാ ജോലിയെ കുറിച്ച് കൂടുതൽ എത്തുന്നില്ല കാരണം അത് കുറച്ച് മാത്രം പൊതുസ്ഥലങ്ങളിൽ എത്തുന്നുള്ളൂ ശരിയായ ഒരു നോട്ടിഫിക്കേഷൻ അലർട്ട് അല്ലെങ്കിൽ ഒരു പരസ്യമോ ആ ജോലികൾക്കില്ല ജസ്റ്റ് ഇറക്കുന്നുണ്ട് പക്ഷേ അത് കുട്ടികൾക്ക് എത്തുന്നില്ല യൂട്യൂബർ ക്രിയേറ്റർ യൂട്യൂബർ ക്രിയേറ്ററാണെങ്കിലും ആ കുട്ടിക്ക് വേണ്ട ഒരു ഇല്ലെങ്കിൽ ആ ആൾക്ക് വേണ്ട ഒരു സാഹ് സ്വാതന്ത്ര്യം ഇന്ത്യയിൽ കുറവാണ് പൊതുവേ ഇപ്പോൾ പുറത്ത് നമുക്കൊരു ക്യാമറയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ച് യൂട്യൂബറാണ് പറഞ്ഞ് പോയേച്ചാൽ എല്ലാവരുടെ റിയാക്ഷൻ ഒരുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ പുറത്ത് ചിലർക്ക് അത് ഇഷ്ടമാവില്ല ചിലർ ചിലപ്പോൾ തല്ലും അല്ലെങ്കിൽ സംസാരം വേറെ രീതിയിലൊക്കെയാകും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് കുറേ മാറ്റം വരാനുണ്ട് കാരണം ഇപ്പോൾ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് മേഖല ആയിക്കോട്ടെ ഇപ്പോൾ യൂട്യൂബറില്ലെങ്കിൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ പോലെ നമുക്കിപ്പോൾ കുറച്ച് വളർന്ന രീതിക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് വേണം ഒരു യൂട്യൂബർ പറയുമ്പോൾ തന്നെ അതിനു വേണ്ട നല്ല സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു നടനായിക്കോട്ടെ നടനഭിനയിച്ച സിനിമയ്ക്ക് നല്ല സപ്പോർട്ട് കിട്ടും ഇപ്പോൾ എല്ലാവരും ആ സിനിമയുടെ മെസ്സേജ് നോക്കില്ല ഒന്നും നോക്കില്ല ഇന്നത് അതിൽ എന്തെങ്കിലും ഒരു ചെറിയ ഭാഗം തെറ്റുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും കണ്ടുപിടിച്ച് ഡീഗ്രേഡ് ചെയ്യാനും അങ്ങനെ കുറ്റപ്പെടുത്താനും തുടങ്ങും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് എന്ത് തുടങ്ങാനും പറ്റില്ല ഇപ്പോൾ ചെറുപ്പക്കാരായിക്കോട്ടെ ഇപ്പോൾ ട്രേഡിങ് വേറെ രാജ്യങ്ങളിലെ ട്രേഡിങ് മണി ട്രേഡിങ് അതൊരു നല്ല പരിപാടിയാണ് പക്ഷേ അത് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് അത് പറ്റില്ല ചെയ്യാൻ പറ്റില്ല ചെയ്താലും ഇപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ നാട്ടിൻപുറത്തെ ഒരാളുടെ അടുത്ത് പോയിട്ട് ചേട്ടാ ഇങ്ങനെ കുറച്ച് പി പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഡബിളാക്കി തരാം എന്നു പറഞ്ഞേച്ചാൽ അവർ പറയും നിനക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ അത് പറ്റിപ്പാണ് അത് തട്ടിപ്പാണ് അതാണ് ഇന്ത്യയിലെ സിറ്റുവേഷൻ അതുകൊണ്ട് അതുകൊണ്ട്തന്നെ അങ്ങനത്തെ ഇവിടുത്തെ ജോലികളിലും ഇതിലെല്ലാം മാറ്റം വരേണ്ടതുണ്ട് ഇപ്പോൾ പുതിയ രീതിക്കുള്ള ജോലികളാവുമ്പോൾ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് വേണം അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്